പിന്നെ ഇന്ത്യയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാൻഡ്മാർക്കുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഉണ്ട് മെയിൻ ആയിട്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കില് എൻ്റെ മനസ്സില് ഓടിയെത്തുന്നത് താജ് മഹലാണ് ഷാജഹാനും മുംതാസ് ഷാജഹാൻ മുംതാസിന് വേണ്ടി പണിത് ഇട്ടതും മുംതാസിന് ഒരിക്കലും അത് കാണാൻ പറ്റിയിട്ടില്ല ബാക്കിയുള്ളവർ എല്ലാവരും കണ്ട ഒരു അതായത് താജ് മഹലാണ് താജ് മഹലാണത് ഒരുപാട് വിനോദസഞ്ചാരികള് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് കാണുന്നുണ്ട് പക്ഷെ എനിക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല എനിക്കും വലിയ ആഗ്രഹമുണ്ട് കാണണമെന്ന് പിന്നെ മെയിൻ ആയിട്ട് എല്ലാവരും അതായത് എല്ലാവരും കൂടുതലും വിസിറ്റിംഗ് ഗോവ ഗോവയില് ഒരുപാട് പേര് പോകും അതായത് വിനോദസഞ്ചാരികള് ഒരുപാട് പേര് പോകും ബീച്ച് അവിടെ പ്രത്യേക ഒരു വൈബ് ആണല്ലോ അപ്പോൾ അവിടെ പോവും പിന്നെ ഹംപി അങ്ങനെ ഒരുപാട് ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് നമുക്കിവിടെ പിന്നെ അതുപോലെ ചെറു ചെറു ഇതിപ്പോൾ വലിയ വലിയ വിനോദസഞ്ചാരം അതിനനുസരിച്ച് ചെറിയ ചെറിയ ഒരുപാട് ഭംഗിയുള്ള ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങള് വേറെയും ഉണ്ട്